ധൂമകേതു ഞാൻ ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുണ്ട് അതില് എന്നെ നന്നായി ആകർഷിച്ചത് അതിൻ്റെ ഭംഗിയാണ് സൗരകണങ്ങളേറ്റുകൊണ്ട് മിന്നിത്തെളങ്ങുന്ന പോലുള്ള അത് കാണാൻ തന്നെ കണ്ണിന് നല്ല കുളിർമ്മയേകുന്ന ഒരനുഭവാണ്